ഹലോ ഗൈസ് പുതിയ എന്റെ ഒരു യൂ റ്റൂബിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോള് വ്യൂവേഴ്സ് നിങ്ങളെല്ലാവരും അറിഞ്ഞുകാണും ഈ കഴിഞ്ഞിടെ കഴിഞ്ഞയാഴ്ച്ച എന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു എന്റെ വിവാഹം കഴിഞ്ഞു അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു എന്റെ ആധാറിൽ ഓൾറെഡി എന്റപ്പന്റെ പേരാണല്ലോ കിടക്കുന്നത് അപ്പോള് അതിലേക്കിനി എന്റെ ഭർത്താവിന്റെ പേര് ചേർത്താലോ എന്നൊരു ആലോചന ഇല്ലാതില്ല പല കാര്യങ്ങൾക്കും നമുക്കിപ്പോള് ആധാറാണല്ലോ മുഖ്യം അപ്പോള് അതിന് ഞാനെങ്ങനെയാണ് എന്റെ വ്യൂവേഴ്സിനാർക്കെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളറിയാമെങ്കിൽ അക്ഷയ സെന്ററുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് എങ്കിലെനിക്കതൊന്ന് പറഞ്ഞ് തരുമോ ഞാനക്ഷയ സെന്ററിൽ നേരിട്ട് പോകണോ അതോ മൊബൈലിലൂടെത്തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുമോ അറിയാവുന്ന കാര്യങ്ങള് ഒന്ന് വ്യൂവേഴ്സ്സാരെങ്കിലുമുണ്ടെങ്കിലെനിക്ക് എത്രയും പെട്ടെന്നൊന്ന് റിപ്ലെ തന്ന് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നൂ അപ്പോള് ഓക്കേ ഗുഡ് ഇന്നത്തെ ഈ ദിവസത്തിന്റെ എന്റെ ടിപ്സും കാര്യങ്ങളും എല്ലാവർക്കും മറ്റുള്ളവർക്കുങ്കൂടെ പ്രയോജനമാകും കല്യാണം കഴിഞ്ഞിരിക്കുന്നവർക്കും അതൊരു പ്രയോജനമാകും പറഞ്ഞ് തരികയാണെങ്കിൽ അപ്പോള് എല്ലാവരിൽനിന്നും ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് മീ സൈനിങ്ങോഫ് റോസ്